പത്ത് നാല് രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത് പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന്